ഹലോ ക്യാമ്പ് ബുക്ക് ചെയ്യാനാണെ ഞങ്ങൾക്ക് കുറച്ച് ദൂരെ യാത്രയാണ് പിന്നെ അച്ഛനും അമ്മനെയും മറ്റേ എറണാകുളത്ത് കൊണ്ടുവിടാനാണ് ഞാനും എൻറെ ഭർത്താവും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടാവും അവർക്ക് പോകാനുള്ള ക്യാമ്പ് ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് അതുകൊണ്ട് പിന്നെ സൗകര്യം ഉണ്ടാകുവോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് പിന്നെ അതുകൊണ്ട് ഞങ്ങൾക്കിത്ര മണിയാണ് എട്ടു മണി ആകുമ്പോഴേക്കും അവിടെ എത്തണം അതുകൊണ്ടാണ് പിന്നെ നേരത്തെ ബുക്ക് ചെയ്യുന്നത് യാത്ര സൗകര്യം ന നല്ലോണം വേണം അച്ഛനും അമ്മയ്ക്കും കുറച്ചു പ്രായമുള്ളതാണ് അതുകൊണ്ടാണ് ഞങ്ങള് ബുക്ക് ചെയ്തിട്ട് തന്നെ വരാൻ തീരുമാനിച്ചിട്ടുള്ളത്